ഹലോ നമസ്കാരം ഫെഡറൽ ബാങ്കല്ലേ ഞാന് കഴിഞ്ഞ ദിവസം എൻ്റെ എ ടി എം ഇത് ഉപയോഗിച്ച് യു പി ഐ ഉപയോഗിച്ച് പേയ്മെൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോള് പേയ്മെൻറ് റീചാർജ് ആയിരിക്കുന്നത് ഞാന് നിങ്ങളുടെ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോള് അത് റീചാർജ് ആയിട്ടുണ്ട് പക്ഷേ അത് ഇതില് എനിക്ക് റീചാർജ് ആയിട്ടില്ല അപ്പോള് അങ്ങനത്തെ അവസ്ഥയില് ഞാനിപ്പോള് എന്താ ചെയ്യേണ്ടതെന്നാണു ഞാനിപ്പോള് അതിനു വേണ്ടിയാണു വിളിച്ചിരിക്കുന്നത് അപ്പോള് നിങ്ങള്ക്കൊന്ന് എൻ്റെ സ്റ്റേറ്റ്മെന്റോ എന്തെങ്കിലും ഞാൻ ആപ്ലിക്കേഷൻ നോക്കിയപ്പോള് ഉണ്ട് നിങ്ങള്ക്ക് സ്റ്റേറ്റ്മെൻറ് ഒന്നു നോക്കി എനിക്കൊന്നു പറയാൻ പറ്റുമോ അത് റീചാർജ് ആയിട്ടുണ്ടോ ഇനി ഇല്ല എന്താണത് ഹോൾഡ് ആവാൻ കാരണം എനിക്ക് റീചാർജ് ആയിട്ടില്ല എൻ്റെ മൊബൈല് റീചാർജ് ആയിട്ടില്ല അപ്പോള് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമോ ആ ഓക്കെ ഓക്കെ ആ വെയിറ്റ് ചെയ്യാം ഓക്കെ

റീചാർജായിട്ടില്ല അപ്പോള് എന്താണ് ഇനിയിപ്പോള് അടുത്ത എന്താണു ചെയ്യണം ആ ഇരുപത്തിനാല് മണിക്കൂറോ ഇരുപത്തിനാല് മണിക്കൂര് കഴിഞ്ഞിട്ടേ അതു തിരിച്ച് അക്കൗണ്ടിലേക്കു കയറൂ എന്നാണോ അപ്പോള് ഇത്രയും ഈ അപ്പോള് ഞാന് ഇനി വേറെ റീചാർജ് ചെയ്താൽ ഇതുപോലെ ഹോൾഡ് ആവുമോ എനിക്ക് ഒന്നും കൂടെ ഇതുവരെ റീചാർജ് ചെയ്തിട്ടില്ല അപ്പോള് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി തന്നെ റീചാർജ് ചെയ്ത് ഞാൻ ചെയ്തു നോക്കട്ടെ എന്താണു ചെയ്യേണ്ടത് ഇനി ആ ഓക്കെ അപ്പോള് ഇത് ഏതായാലും തിരിച്ച് എൻ്റെ അക്കൗണ്ടിൽ കയറും അപ്പോള് പുതിയതായിട്ട് റീചാർജ് ചെയ്താലും മതിയല്ലേ ഓക്കെ എന്നാല് ഞാന് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഞാൻ റീചാർജ് ചെയ്യാം പേയ്മെൻറ് എന്തായാലും എനിക്കു തിരിച്ച് റിട്ടേൺ വരും ഓക്കെ